ഇന്ത്യേൽ സാംസ്കാരിക പാരമ്പര്യവും വിശ്വാസവും ഒക്കെ മതപരമായ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യേന്ന് പറയുന്നത് മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഏതൊക്കെതരത്തിൽ നാം വ്യത്യാസപ്പെട്ടിരിക്കുന്നൂന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മതപരമായ മതപരമായ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്പും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസവാണ് ഇന്ത്യേന്ന് പറയുന്നത്